എനിക്ക് സമയം കുറവുള്ളപ്പോൾ അല്ലെങ്കിൽ ചേരുവകൾ കുറവുള്ളപ്പോൾ ഞാൻ സ്ഥിരമായുണ്ടാക്കുന്നത് മൂന്ന് ഭക്ഷണങ്ങളാണ് ന്യൂഡിൽസ് റവ ഉപ്പുമാവ് അല്ലെങ്കിൽ അവിൽ കുഴച്ചത് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അധികസമയം ചിലവില്ല അതു മാത്രമല്ല കുറേ ചേരുവകളും ആവശ്യമില്ല ന്യൂഡിൽസിന് നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു പേക്കറ്റ് ന്യൂഡിൽസും അതിൽ ഇടാൻ കുറച്ച് മസാല അല്ലെങ്കിൽ കുറച്ച് ക്യാരറ്റ് അത്ര മാത്രമാണ് അതുപോലെ തന്നെ അവിൽ കുഴച്ചത് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് അവിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര കുറച്ച് തേങ്ങ അതുപോലെ റവ ഉപ്പുമാവുണ്ടാക്കാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് റവയും ചെറിയ അളവിൽ ഉപ്പ് പച്ചമുളക് ഇവ മാത്രമാണ് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാക്കാനും പറ്റും അധികം ചിലവും ഇല്ല